ആരോഗ്യ സംരക്ഷണ കാര്യത്തില് നമ്മുടെ സംസ്ഥാനം നഗരങ്ങളില് മെച്ചപ്പെട്ടതാണെങ്കിലും ഗ്രാമങ്ങളില് വളരെ ദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ ആദ്യ കാലത്തുള്ള പ്രൈമറി ഹെല്ത്ത് സെന്ററുകള് പി എച്ച് സി ഇപ്പോള് അത് കമ്മ്യൂണിറ്റി ഹെല്ത്ത് സെന്ററായി മാറിയിരിക്കുന്നു കമ്മ്യൂണിറ്റി ഹെല്ത്ത് സെന്ററില് ഒരു വിധം എല്ലാ രോഗങ്ങൾക്കുമുള്ള ഡോക്ടര്മാർ എണ്ണം കുറവാണെങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ജില്ലാ ഹോസ്പിറ്റലുകളാണ് ജില്ല ആശുപത്രിയിലാണ് അല്ലെങ്കില് താലൂക്ക് ഹോസ്പിറ്റലുകളാണ് ഇപ്പം കൂടുതല് ഇതിനേക്കാള് ഡോക്ടര്മാരും സൗകര്യങ്ങളും നമുക്കുള്ളത് പിന്നെ നമ്മുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം രോഗം രോഗികളുടെ എണ്ണം കൂടുകയും എന്നാല് ഡോക്ടര്മാർടെ എണ്ണം കുറവുമാണ് നഗരങ്ങളില് മെഡിക്കല് കോളേജുകൾ സംവിധാനമൊക്കെ ഉള്ള കാരണത്താല് ഒന്നുകൂടി കൂടുതല് സൗകര്യം കിട്ടും എന്നാണ് എന്നാല് ഗ്രാമങ്ങളില് ഹെല്ത്ത് സെന്ററാണ് കൂടുതല് ഉപയോഗിക്കുന്നത് അതും ആയുര്വേദത്തിന്റെ ഉണ്ട് യുനാനി ഉണ്ട് ഹോമിയോ ഇതെല്ലാമുണ്ട് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ കാര്യത്തിലും നമ്മുടെ സര്ക്കാര് ഉന്നതി നേടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോള് ഇവിടെ കൂടുതല് ഹൈസ്കൂളുകളും ഹയര്സെക്കന്ഡറി സ്കൂളുകളും കോളേജുകളൊക്കെ വന്നതിൻ്റെ കാരണത്താല് വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും അതിനെ ഒക്കെ രീതികളെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട് പഴയ കാലത്ത് ഒരു എല് പി സ്കൂള് കഴിഞ്ഞാൽ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞാല് നമുക്ക് ഉയര്ന്നു പഠിക്കാന് സൗകര്യങ്ങളില്ലായിരുന്നു എന്നാല് ഇന്ന് ഒരു വിധം സ്കൂളുകളൊക്കെ ഹൈസ്കൂളുകളായി മാറുകയും ആ ഹൈസ്കൂൾ തന്നെ ഹയര്സെക്കന്ഡറിയായി മാറുകയും ചെയ്ത കാണത്താല് നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഒരു തരത്തിൽ എല്ലാ വിദ്യാഭ്യാസവും ഇവിടെ നടക്കുന്നുണ്ട് ഗതാഗത കാര്യത്തിലും നമ്മള് പട്ടണങ്ങളെ കൂടുതല് സൗകര്യമുണ്ട് എന്നാല് ഗ്രാമങ്ങളില് ഗതാഗത സൗകര്യം വളരെ കുറവാണ്